നൃത്തം കേവലമതൊരു കലമാത്രമായി എനിക്കതിനെ മാറ്റിനിർത്താൻ സാധിക്കില്ല കാരണം എനിക്ക് നൃത്തമെന്ന് പറഞ്ഞാല് എന്റെയൊരു ജീവിതത്തിൻറ്റെ ഭാഗംതന്നെയാണ് എല്ലാവരുടെയും ജീവിതത്തിൻറ്റെ ഭാഗമാണ് നൃത്തം അതെ നമ്മളൊരു കയ്യനക്കുമ്പോൾപ്പോലും അതിനകത്ത് നൃത്തത്തിൻറ്റെ ഒരംശമുണ്ട് ഞാനെന്നും അങ്ങനെ വിശ്വസിക്കാന് ആഗ്രഹിക്കുന്നൊരാളാണ് ഒരിക്കലും നൃത്തമൊരു കലയല്ല മറിച്ച് ജീവിതത്തിൻറ്റെ ഭാഗമാണെന്ന് തന്നെയാണ് ഞാനിന്നും എന്നും വിശ്വസിക്കാൻ പോകുന്നത് എൻറ്റെ എനിക്ക് പണ്ടുതൊട്ടേ ചെറുപ്പം മുതലേ എനിക്ക് നൃത്തം ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ കുറച്ച് നാളത്തേക്ക് നൃത്തം പഠിക്കാനൊക്കെ പോയിട്ടുണ്ട് ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് എനിക്ക് കലാമണ്ഡലത്തില്പ്പോയി നൃത്തം അഭ്യസിക്കണമെന്നുള്ളതാണ് ഞാന് എന്റെയൊരു പത്താം ക്ലാസ് വരെയും ഞാന് നൃത്തം അഭ്യസിച്ചിട്ടുണ്ട് ഞാന് ഗുരുവായൂരിൽ നിന്നായിരുന്നു എന്റെ അരങ്ങേറ്റം അതിനുശേഷം ഇപ്പോഴെന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറഞ്ഞാൽ കലാമണ്ഡലത്തിൽ പോയി നൃത്തം അഭ്യസിക്കണമെന്നുള്ളത് മാത്രമാണ് അല്ലാതെ അതിൽക്കൂടുതലായിട്ട് എനിക്ക് അതില് നേട്ടങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽപ്പോലും ഞാനെന്നും സന്തുഷ്ടയാണ് കാരണം എന്റെ ഏറ്റവും വലിയ നൃത്തമെന്ന് പറയുന്നത് എനിക്ക് നൃത്തം ചെയ്യാൻ സാധിക്കുന്നുവെന്നതാണ് എന്നും രാവിലെ എഴുന്നേല്ക്കുമ്പോള് എൻറ്റെ കാലുകൾക്കും കൈകൾക്കും ചലനം നൽകുന്ന ദൈവം എനിക്കെന്നും നൃത്തം ചെയ്യാൻകൂടി കഴിവ് തരട്ടെയെന്ന് ഞാനെന്നും പ്രാർത്ഥിക്കുന്നു എനിക്കേറ്റവും കൂടുതലും അതിൽക്കൂടുതലായിട്ട് എനിക്ക് വലിയൊരു നേട്ടം എനിക്കത് അവിടെച്ചെന്ന് പഠിക്കുകയെന്നതാണ് എൻറ്റെ ഏറ്റവും വലിയ നേട്ടം അല്ലാതെ വേറെയൊന്നുമല്ല എനിക്ക് ഇതിലും വലിയൊരു അംഗീകാരം എന്റെ ഏറ്റവും വലിയ മികച്ച നേട്ടവും അംഗീകാരവുമൊക്കെ ഇത് തന്നെയാണ്